എപ്പോഴും അപകടത്തിൽ മുന്നിൽ നിൽക്കുന്ന കാര്യമാണ് വൈദ്യുതി ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് ഒരു വീട്ടിൽ തന്നെ ആണെങ്കിലും എന്നെ ഒരു വൈദ്യുതി വൈദ്യുതി കണക്ഷനിൽ നിന്നും മഴ ഒക്കെ പെയ്യുമ്പോൾ നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കണം പിന്നെ കറണ്ട് ഷോർട്ട് സർക്യൂട്ട് വന്നു നമുക്ക് അപകടങ്ങൾ ഇപ്പം നിരവധിയായിട്ട് നമുക്ക് പേപ്പറുകളിൽ ഒക്കെനും ഒക്കെ നമുക്ക് കാണാം അപകടങ്ങൾ നിരവധി നടക്കുന്നുണ്ട് നമ്മുടെ വീടുകളിലാണെങ്കിൽ വയറിങുകൾ ശ്രദ്ധിക്കുക കാലാകാലങ്ങളിൽ അതിൻ്റെ പിന്നെ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ചെയ്യുന്നത് വളരെ ഉപകാരമായിരിക്കും പിന്നെ കറണ്ട് കറണ്ടിന് നമ്മൾ പിള്ളേരോട് ആണെങ്കിലും പറയും കറണ്ടിനോട് കളിക്കുന്നത് നല്ലതല്ല നമ്മൾ എപ്പോഴും വൈദ്യുതി വീട് ഉപയോഗം നമ്മൾ കഴിവതും ശ്രദ്ധാലുക്കൾ ശ്രദ്ധയോടു കൂടി വേണം അത് മഴയായാലും ഇടി ആയാലും ഒക്കെ നമ്മുടെ ഇലക്ട്രിക് ഉപകരണങ്ങൾ പിന്നെ നമ്മൾ നന്നായിട്ട് പിന്നെ നോക്കണം സംരക്ഷിക്കണം ഇടിയും കാറ്റും ഒക്കെ വരുമ്പോൾ നമ്മൾ നമ്മുടെ മെയിൻ സ്വിച്ച് ഓഫാക്കുക ഇലക്ട്രിക് സാധനങ്ങളെല്ലാം ഊരി ഇടുക അവയൊക്കെ നമ്മുടെ കറൻ്റിൻ്റെ അപകടത്തിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നതാണ് കറണ്ടിൽ നമ്മൾ ഓർമ്മ ഇല്ലാതെ പിന്നെ ഇത് നമ്മുടെ മോട്ടറ് ന്നെ ഇത് അയൺ ബോക്സുകൾ മിക്സി ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പിന്നെ ഉപയോഗിച്ചതിനു ശേഷം അത് കൃത്യമായിട്ട് നമ്മൾ അത് ഉപയോഗിചു കഴിഞ്ഞു അത് ഉടനെ നിർത്തലാക്കി ഊരിയിട്ട് നമ്മൾ ഉറപ്പു വരുത്തേണ്ടതുണ്ട് നമ്മൾ അഥവാ എവിടെ എങ്കിലും ഒരു യാത്ര പോവുകയാണേങ്കിൽ തന്നെ കറണ്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒത്തിരി ശ്രദ്ധ വേണം നമ്മൾ വീട്ടിൽ ഒരു രണ്ടു ദിവസത്തിനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കൽ കറണ്ട് ഒക്കെ ഓഫ് ആക്കിയിട്ട് പോകുന്നതാണ് എപ്പോഴും നമ്മൾ നമ്മൾക്ക് ഇതിൻ്റെ അപകടത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നത്